ജീവിതത്തിൽ നമുക്ക് ജോലി പഠനം എന്നിവയെ പോലെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് വല്ല കഴിവുകള് ഉണ്ടെങ്കില് അതിനെ വികസിപ്പിച്ചെടുക്കുകാന്നുള്ളത് പാട്ടുപാടുക മാത്രമല്ല ചിത്രം വരയ്ക്കാനും ഡാന്സ് കളിക്കാനും ഒക്കെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മുടേതായ രീതിയില് അതിനെ വളര്ത്തിയെടുക്കാന് വേണ്ടി ശ്രമിക്കണം ഇപ്പോൾ പാട്ടുപാടാൻ എനിക്ക് ഞാൻ ആ പഠനത്തോടൊപ്പം അത് പാട്ടുപാടി നും സമയം കണ്ടെത്താൻ ശ്രമിക്കാറുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ദിവസവും ഞാന് പഠിക്കാന് വേണ്ടി പോയിട്ട് വന്നിട്ട് ദിവസവും ഒരു ഒരു മണിക്കൂര് ഞാന് ഇതിന് വേണ്ടി കണ്ടെത്താറുണ്ട് അപ്പോൾ പഠനത്തോടൊപ്പം നമ്മുടെ കഴിവു വികസിപ്പിച്ചെടുക്കാന് വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ ദിവസവും അല്ലെങ്കിൽ സ്കൂളുകളില് അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകള് പാട്ടുമായ് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ വരുമ്പോൾ അവയില് പങ്കെടുക്കാന് ഞാന് ശ്രമിക്കാറുണ്ട് അപ്പോൾ പാട്ട് പാടുകയും കേൾക്കുകയും ചെയ്യുന്നത് എനിക്കെന്നെ സംബന്ധിച്ചെടുത്തോളം മനസ്സിനു ഒരു ഉന്മേഷം തരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ജോലിത്തിരക്കുകള് അല്ലെങ്കിൽ പഠനത്തിന്റെ ഇടയിലുള്ള സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാന് വേണ്ടി നല്ല മെലഡീസ് ആയിട്ടുള്ള പാട്ടുകള് കേൾക്കണത് നല്ലതാണ് അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും നമുക്ക് ഉന്മേഷം വീണ്ടും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂസ് ചെയ്ത് പോകാന് വേണ്ടി നമുക്ക് കഴിയുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കില് അത് അത് വികസിപ്പിച്ചെടുക്കാന് വേണ്ടി ശ്രമിക്കണം ഇപ്പോൾ പാട്ടിന് അതിന് വേണ്ട തുല്യ പ്രാധാന്യം ഞാന് ജീവിതത്തില് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ പുതിയ പാട്ട്കൾ കണ്ടെത്താന് പുതിയ പുതിയ പാട്ടുകളിറങ്ങുമ്പോൾ അത് കേൾക്കാനും അത് പഠിക്കാനും പാടാനും ഞാന് ശ്രമിക്കാറുണ്ട് ഇ ഈ പാട്ടിനോടുള്ള താല്പ്പര്യം മറ്റ് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പഠനത്തെ ബാധിക്കാത്ത രീതിയില് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് പാട്ടിന് എന്റെ ജീവിതത്തില് വളരെ ഇമ്പോര്ട്ടന്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ജോലി പഠനവും മാത്രമല്ല നമ്മൾ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ വളര്ത്തിയെടുക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റാനും ശ്രമിക്കണം അപ്പോൾ നമ്മൾ തുടര്ച്ചയായിട്ടുള്ളൊരു എഫർട്ട് കൊണ്ട് നമ്മുടെ കഴിവ് പാട്ട് എന്നുള്ളത് എന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിക്കഴിഞ്ഞു ഇപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം എക്സ്ട്രാ എഫോർട്ടൊന്നും കൊടുക്കേണ്ടാതായിട്ട് വരുന്നില്ല അതൊരു ഡെയിലി ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു